അങ്കിൾ ഇവിടം വരെ ഒന്ന് കൊണ്ടുവരണം വർക്കല വരെയൊന്ന് ഡ്രോപ്പ് ചെയ്യാമോ വർക്കല വരെ ആ ഓക്കെ ആ ഉം ഉം പിന്നെ ഇവിടെ ഇപ്പം എന്താണ് എവിടെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വർക്കെക്ക് ചെയ്യാറ് അതായത് നമ്മുടെ ഈ കുട്ടനാടിനെപ്പറ്റി നമുക്ക് എവിടെയാണ് പോകാൻ പറ്റിയ സ്പോട്ടുകളും കാര്യങ്ങൾ ഉള്ളത് എന്ന് ഒന്ന് പറഞ്ഞ് തരുമോ അതെ അല്ല എനിക്കത് ഒക്കെ കുട്ടനാട് എനിക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ

നമുക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അത്യാവശ്യം നല്ലതല്ലേ നമുക്ക് അതായത് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും അല്ലേ ഓക്കെ ആ ഉം അത് നമുക്ക് ഈ ഫാമിലിയൊക്കെയായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഹൗസ് ബോട്ടും കാര്യങ്ങളുമൊക്കെ അവർ അവൈലബിൾ ആക്കി തരുമോ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണം ഉം ഉം ഓക്കെ നമുക്ക് അപ്പോൾ കിലോമീറ്ററിന് എത്രയാ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്ര അമൗണ്ട് അല്ലേ വരത്തുള്ളൂ ഒരു ഫാമിലിയായിട്ട് നമുക്കൊരു ഹൗസ് ബോട്ട് മൊത്തത്തിൽ ഓക്കെ അത്രയേ ഒക്കെ അവത്തുള്ളൂ അല്ലേ ആ പിന്നെ ഉം ഓക്കെ ആ പിന്നെ ഞാൻ വന്നിട്ട് രണ്ടു ദിവസമേ ആയിട്ടുള്ളു അതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ പിന്നെ ഈ കേരളത്തിൻ്റെ ഈ ഗോഡ്സ് ഓൺ കൺട്രീ എന്ന് പറയുന്നത്